ആ ഞാനിപ്പോൾ എൻ്റെ കുട്ടികളെ ചേർക്കാൻ വേണ്ടി വന്നതാണെ അപ്പോൾ അതിൻ്റെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഒന്നന്വേഷിക്കാൻ വേണ്ടിവന്നതാണ് ആ ഒരുകുട്ടി എൽ കെ ജീലോട്ടും ഒരുകുട്ടി രണ്ടാംക്ലാസ്സിലോട്ടുമാണ് ഇപ്പോൾ നാലുവയസ്സ് ആ ഇനി ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും അഞ്ച് അഞ്ചുവയസ്സാകും നാലര മ് ഇപ്പോൾ നമ്മുടടുത്തുള്ള ഗവണ്മെൻറ് സ്കൂളിലാണ് പഠിച്ചോണ്ടിരുന്നത് കുഴപ്പമില്ല നന്നായി പഠിക്കുന്നതാണ് പിന്നെ ഈ ഇംഗ്ലീഷ് കുറച്ചു ഫ്ലുവൻറ് ആകാത്ത കൊണ്ടാണിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് ചേർത്തത് ഞാൻ പഠിക്കാനൊന്നും കുഴപ്പമില്ല മാത്സ് ഒക്കെ കറക്റ്റ് ആയിചെയ്യും മ് പിന്നെ മാസം ഫീസ് എക്സ്ട്രാ ഉണ്ടല്ലേ

ആ സ്കൂൾ ബസുണ്ടാവും അല്ലെ ആ ഓക്കെ ഈ ബുക്ക്സും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ആ നമുക്കിപ്പോൾ ഇവിടുന്നൊരു പതിനഞ്ചുകിലോമീറ്ററുണ്ട് ആണല്ലേ ആ ആ ആ പിന്നെ ഇതിപ്പോൾ ഈ ഡൊണേഷനും മാസമുള്ള ഫീസും അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഫീസ് വല്ലതും വരുവോ ഇടയ്ക്കിടയ്ക്കുള്ള ആ ആ ഓക്കെ അല്ല ഇപ്പോൾ ഈ എക്സ്ട്രാ നമ്മളിപ്പോൾ സ്പോട്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആനുവൽ ഡേ സമയത്ത് അങ്ങനെന്തെങ്കിലുമൊക്കെ ഫീസ് വരുന്നതോ അല്ല ഇപ്പോൾ സ്കൂളില് വല്ല പരിപാടി നടക്കുന്ന സമയത്ത് അതിൻ്റെയായിട്ട് വല്ല ഫീസ് വല്ലതും മേടിക്കുവോ എക്സ്ട്രാ

പിന്നേ വേറെ ഇപ്പോൾ ആ രാവിലെ എത്രമണിക്കാണ് ബസ് അവിടെ എത്തുക നമ്മടെവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഇപ്പോൾ വല്ല സമയത്തും മ്

ആ ശരി

രണ്ടുപേർക്കും രണ്ടുബസ്സാണല്ലേ ഉച്ചയ്ക്ക് ആ ആ ശരി ശരി ഓക്കെ